എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടിയിരുന്നുള്ള വിനോദം എന്ന് പറയുന്നത് സംസാരിക്കുക കൂട്തൽ സംസാരങ്ങളും തമാശകളും പൊട്ടിച്ചിരികളും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം വച്ച് എല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിക്കുക പിന്നെ ഓരോ തമാശകൾ മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് ചിരിക്കുക നോപ്പ്യേ കുട്ടികളുമായിട്ട് താമശകളും കരി കളിയും കാര്യങ്ങളും ഭഷണം വയ്ക്കലും അവർക്കിഷ്ടമുള്ള ഭഷണങ്ങൾ വച്ച് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെ എങ്കിലും വിനോദ യാത്രയ്ക്ക് പോവുക ഇതൊക്കെയണ് എനിക്ക് ഏറ്റവും കൂട്തൽ പെട്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമൊത്ത് ഞങ്ങൾ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുകൂടി ഇത് പോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒത്തൊരുമിച്ച് ഞങ്ങൾ ഭക്ഷണങ്ങൾ വച്ച് കഴിക്കാറുണ്ട് ഒരു വീട്ടിൽ കൂടാറുണ്ട് ഞങ്ങൾ അഞ്ചാറ് മക്കളാണ് അപ്പോഴെല്ലാവരും കൂടി ഈ വെക്കേഷൻ സമയങ്ങളിൽ എല്ലാവരും കൂടി ഒത്ത് കൂടും മക്കളും ഞാൻ എൻ്റെ ആങ്ങളമാരും നാത്തൂൻമാരും മക്കളും എല്ലാവരും കൂടി അതാണ് എൻ്റെ ജീവിതത്തിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്നാണ് എൻ്റെ ഓർമ്മയിൽ അവർ ഒത്തു കൂടുമ്പോഴാണ് എനിക്ക് ഒരു സന്തോഷം ഏറ്റവും കൂട്തൽ അനുഭവിക്കാറ് എന്നാണ് എനിക്ക് പറയാനുള്ളത്